ഞാൻ ഒരു ഫോൺ വാങ്ങിരുന്നു അത് ഏതാന്ന് വെച്ചാൽ സാംസങ് ടെൻ ആണ് സാംസങ്ങിൻ്റെ ഗാലക്സി ടെൻ ആണ് വാങ്ങിയത് അത് നോക്കുമ്പോൾ നന്നായിട്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് നമ്മുടെ അതിൽ നിന്ന് ക്യാമറയും അതുപോലെ വിഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയും നല്ല റിയൽ ആയിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് യൂസ് ചെയ്യാന് എന്ന് വച്ചാല് പിന്നെ അതിൻ്റെ സെറ്റിംഗ്സ് ആണെങ്കിലും അതൊക്കെ നല്ല നന്നായിട്ട് പെട്ടന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അത് നന്നായിട്ട് പെട്ടന്ന് തന്നെ ചാർജ് കയറും ഒരുപാട് സമയം ചാർജ് അതിൽ തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേറൊരു പവർ ബാങ്കിൻ്റെയോ അല്ലെങ്കില് ഇപ്പോൾ ഒരു ദിവസം ചാർജർ ഇല്ലാതെ കയ്യിൽ ആയാൽ ഇപ്പോൾ നമ്മള് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ പിന്നെ അത് നല്ല രീതിയിൽ തന്നെ ചാർജ് നിൽക്കുന്നത് കൊണ്ട് പെട്ടന്ന് തന്നെ ബുദ്ധിമുട്ടില്ല ചാർജ് തീരും എന്ന പേടിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഇല്ല വേറൊരു വേറൊരു പിന്നെ പവർ ബാങ്ക് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല